കൃഷിക്കായി നമ്മൾ പ്രധാനമായി ഉപയോഗിക്കുന്നത് ട്രാക്ടറാണ് ടാക്ടർ ഉപയോഗിച്ചിട്ട് നമ്മൾ നെല്ലു കൊയ്യാനും നെല്ല് കണ്ടംപൂട്ടാനും അങ്ങനെ നിരവധി കാര്യങ്ങൾ നമ്മൾ ട്രാക്ടറിൽ ചെയ്യുന്നു ഇത് നെല്ല് കൊയ്തു കഴിഞ്ഞിട്ട് ഓരോ ഓരോ കൃഷിക്കും ഓരോ ഉപകരണങ്ങളാണ് ഉപയോഗിക്കുന്നത് ഇപ്പോൾ നെല്ലിൻ്റെ കാര്യം എടുത്തുകഴിഞ്ഞാൽത്തന്നെ ഇപ്പോൾ നെല്ല് കൊയ്യുന്ന യന്ത്രം ഒക്കെ വളരെ ഉപയോഗകരമാണ് ഇപ്പോൾ നമ്മൾ തെങ്ങ് കയറാൻ തന്നെ ഉപയോഗിക്കുന്നത് ഇത് ഓരോന്നിനും ഓരോ യന്ത്രങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് പിന്നെ നമ്മൾ ടാക്ടർ ഉപയോഗിച്ച് നെല്ല് കണ്ടം പൂട്ടുന്നതിനും കണ്ടത്തിൽ നിന്നുള്ള നെല്ല് കൊണ്ടുവന്ന് അത് ഒക്കെ ഇതിലാക്കുന്നതിനും ഇവിടെ എല്ലാത്തിനും ടാക്ടർ ഉപയോഗിക്കുന്നു അതേപോലെത്തന്നെ ഇപ്പോൾ വേറെയൊരു വേറെ കൃഷിപോലെ നടാനാണെങ്കിൽ നമുക്കിപ്പോൾ അതിനനുസരിച്ചുള്ള ഓരോന്നിനും ഓരോ ഉപകരണങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുന്നത് തൂമ്പ തൂമ്പ ഉപയോഗിച്ച് നമുക്ക് തൂമ്പയൊരു കാർഷിക ഉപകരണമാണ് ബിക്കാസ് പിക്കാസൊക്കെ ഉപയോഗിച്ച് നമ്മൾ മണ്ണുകിളക്കും തൂമ്പ ഉപയോഗിച്ച് നമ്മൾ കൊത്തി ഒരു കുഴിയാക്കിയിട്ട് അതിനകത്ത് നമ്മൾ വളവും ഇതൊക്കെ ഇട്ടിട്ടാണ് കൃഷി ആക്കുന്നത് ഓരോന്നിനും ഓരോ ഉപയോഗമാണ് തൂമ്പ പോലെ വേറെയും കുറേ ഉപകരണങ്ങളുണ്ട് കൃഷിക്ക്